മത്സ്യബന്ധന യാത്രയ്ക്ക് പോകുന്നതിനു മുൻപ് നമ്മുടെ മത്സ്യ ബന്ധനത്തിനുപയോഗിക്കുന്ന സാമഗ്രികളെല്ലാം ഉണ്ടോന്ന് ഉറപ്പു വരുത്തണം ഇപ്പോൾ വല അതുപോലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം പിന്നെ ലൈഫ് ജാക്കറ്റ് അതുപോലെത്തന്നെ ബോട്ടിൻ്റെ ഇന്ധനം ബോട്ടിൻ്റെ കപ്പാസിറ്റി മീൻസ് ബോട്ടിൻ്റെ എല്ലാം ചെക്ക് ചെയ്യണം ബോട്ട് എഞ്ചിൻ എല്ലാം പക്കാ വർക്കിങ് ആണോ ബോട്ടിൻ്റെ എല്ലാ ബോട്ടിനെ കുറിച്ചുള്ള എല്ലാ ഇപ്പോൾ നമ്മ ഒരു വണ്ടി ടെസ്റ്റ് ചെയ്യുന്നത് പോലെ എല്ലാം ടെസ്റ്റ് ചെയ്ത് വേണ്ട സാധനങ്ങളെല്ലാം എടുക്കും പിന്നെ പോകുന്നതിനു മുമ്പ് ആചാരങ്ങളാന്നായിട്ടൊന്നുല്ല ആചാരങ്ങള് പറഞ്ഞിട്ടൊന്നുമില്ല ഇതുതന്നെ എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ഒക്കെയാണ് എന്ന് ഉറപ്പു വരുത്തിയ ശേഷം ബോട്ട് പോകും ഇതെല്ലാമാണ് ചെയ്യുന്നത്